തീർച്ചയായിട്ടും ഞാൻ ലൈബ്രറിയിൽ പോകാറുണ്ട് കാരണം ലൈബ്രറി എന്ന് പറയുന്ന പുസ്തകശാലയിൽ ഞാൻ തീർച്ചയായിട്ടും പോകും കാരണം പുസ്തകശാല എപ്പോഴും എനിക്ക് കൂടുതൽ ഒരു എനിക്ക് ഒരു എപ്പോഴും ഒരു ഒരു കൂടുതലായിട്ടും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു നിമിഷമാണ് ഈ പുസ്തകശാലയിൽ പോകുന്നത് കാരണം പുസ്തകശാലയിൽ ചെല്ലുമ്പം നമുക്ക് ആ പുസ്തകങ്ങൾ കാണുമ്പോൾ നമുക്ക് ഒരു സന്തോഷമുണ്ട് കാരണം ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ആ പുസ്തകങ്ങൾ എഴുതിയിരിക്കുന്ന ആൾക്കാരുടെ കഷ്ടപ്പാട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പുസ്തകങ്ങൾ നമ്മൾ വായിക്കും നമുക്ക് പുസ്തകങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ഒരു ഒരു ശാന്തതയായിട്ടുള്ള ഒരു ഒരു നമുക്ക് ഒരു ശാന്തതയായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ നമുക്ക് കടന്നു പോകും കാരണം പുസ്തകം വായിക്കുന്ന പുസ്തകശാല എപ്പോഴും ഒരു ശാന്തമായ ഒരു പശ്ചാത്തലം ആണ് അവിടെ ഒരു അവിടെ രൂപപ്പെടുന്ന ആ ആ ശാന്തതയിൽ അലിഞ്ഞു ചേരാൻ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹിക്കുന്ന ഒരു ആളാണ് ഞാൻ നിങ്ങളുടെ വീട്ടിൽ ഒരു സ്വന്തമായിട്ട് ഒരു പുസ്തകശാല എനിക്ക് സ്വന്തമായിട്ടൊരു പുസ്തകശാലയുണ്ട് ആ പുസ്തകശാലയിൽ ഞാൻ എൻ്റെ ബുക്കുകൾ ബുക്കുകൾ വയ്ക്കുകയും ആ ഒരു ബുക്കുകൾ ഞാൻ എടുത്ത് വായിക്കുകയും ചെയ്യാറുണ്ട് ആ ഒരു മധുരമായ ഗ്രന്ഥങ്ങളൊക്കെ എടുത്ത് വായിക്കുകയും ചെയ്യാറൂണ്ട് കാരണം ഗ്രന്ഥങ്ങൾ എപ്പോഴും നമുക്ക് കൂടുതൽ അറിവ് തരികയും കൂടുതൽ അതിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും ഗ്രന്ഥങ്ങൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യമാണ് കാരണം ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് അനുസരിച്ച് നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ജീവിതത്തെ കൂടുതൽ അടിസ്ഥാനപരമായി നമുക്ക് മനസിലാക്കാൻ വേണ്ടി പറ്റും ആ ഒരു ജീവിതത്തിൽ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ആ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതലായിട്ട് നോക്കുകയും ചെയ്യണം ആ ഗ്രന്ഥത്തിലെ ഓരോ വരികൾക്കും ഓരോ ഓരോ അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങളിലൂടെ കടന്നുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ സ്വപ്നം എൻ്റെ സ്വപ്നമായിട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥശാല എന്ന് പറഞ്ഞൂ കഴിഞ്ഞാൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ വീട്ടിൽ അല്ല അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സ്ഥലത്ത് ഞാൻ സ്വന്തമായിട്ട് ഒരു പുസ്തകശാല തന്നെ നിർമ്മിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ പുതിയ തലമുറ പുതിയ തലമുറ ഇപ്പം ഈ ഒരു ഒരു ടെക്നോളജി ജീവിതത്തിലേക്ക് നയിക്കുമ്പോൾ ജീവിതത്തിലേക്ക് ജീവിക്കുമ്പോൾ അവർക്കൊന്നും പുസ്തകത്തെ പറ്റി അത്രയ്ക്കും ഒരു ഗ്രാഹ്യമായ ഒരു അർത്ഥം ഇല്ലാതായി പോകുന്നുണ്ട് അവർക്ക് അത് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ ഒരു പുസ്തക ശാലയിൽ പോയി പുസ്തകങ്ങൾ വായിക്കുകയാണ് അവർക്ക് ചെയ്യേണ്ടത് കാരണം ഇപ്പം നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ഒരു ആധുനിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പം ആധുനിക ലോകത്തിലെ ഒരു ഒരു ഒരു നമ്മുടെ ഈ ഒരു ടെക്നോളജിയിൽ നമ്മൾ ജീവിക്കുമ്പം അതിൽ ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾക്ക് യന്ത്രങ്ങളിലേക്ക് അല്ല നമ്മൾ ഇറങ്ങി ചെല്ലേണ്ടത് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടത് പുസ്തകങ്ങളിൽ പുസ്തകങ്ങളിലേക്കാണ് ആ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇറങ്ങിച്ചെല്ലേണ്ടത് എന്നാൽ ആ ഒരു ഇറങ്ങിച്ചെന്ന് അതിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ പതിക്കുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഇങ്ങനെയും ജീവിതമുണ്ട് ഇങ്ങനെയും ഒരു ജീവിതം ജീവിക്കാം അതുകൊണ്ട് എൻ്റെ സ്വപ്നം ലൈബറീ എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ലൈബറി പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്